ഇന്ത്യയിലെ എല്ലാ ഇടങ്ങളിലും ഫാഷൻ ട്രെൻഡുകൾ സ്വാധീനിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചാല് സ്വാധീനിച്ചിട്ടുണ്ട് വസ്ത്രധാരണ രീതിയിൽ നിങ്ങളിഷ്ടപ്പെടുന്ന അല്ലെങ്കില് സിനിമയിലെ കഥാപാത്രങ്ങളോ ഒക്കെ തന്നെയാണ് ഇന്നത്തെ മക്കളും നമ്മളും അനുകരിക്കുന്നത് സിനിമയിലെ വസ്ത്രത്തിന് സമാനമായ വസ്ത്രങ്ങൾ സൃഷ്ടിക്കാൻ എല്ലാവരും ശ്രമിച്ചിട്ടുണ്ട് ഞാനും ശ്രമിച്ചിട്ടുണ്ട് ഫാഷൻ ട്രെൻഡുകളെ സ്വാധീനിച്ച് ജീവിക്കാനാണ് ഇന്നെല്ലാവരും ആഗ്രഹിക്കുന്നതും ജീവിക്കുന്നതും ഫാഷൻ ഇല്ലാതെയും മോഡല് ഇല്ലാതെയും ഇന്ന് ഒരു മനുഷ്യനും ജീവിക്കാൻ കഴിയില്ല പണ്ടുള്ള ആൾക്കാർക്ക് തന്നെ ഇന്ന് ഇന്നത്തെ ഇതിലേക്ക് വരുമ്പോള് കാലഘട്ടത്തിലേക്ക് വരുമ്പോള് പല പല മാറ്റങ്ങളും പല പല രീതികളുമുണ്ടായിട്ടുണ്ട് ഇന്ന് വളർന്നുവരുന്ന തലമുറകൾ ഇന്ന് സിനിമയിൽ എന്താണോ കാണുന്ന വേഷം അല്ലെങ്കില് ഇന്ന് ആ സിനിമയിലെ ആ കഥാപാത്രം ഏതുതരം വേഷമാണോ ഉപയോഗിച്ചത് അതായിരിക്കും നാളെ നാളെ എൻ്റെ മക്കളും അല്ലെങ്കില് ഇന്നത്തെ സമൂഹത്തിലെ മക്കളും ധരിക്കാനും അവർക്ക് ആ മോഡലിനോടായിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടവും ഇന്ന് നമ്മളൊരു കടകളിലൊരു വസ്ത്രം വാങ്ങാൻ ചെന്നാലും ആ മോഡലുകളൊക്കെ തന്നെയായിരിക്കും കടകളിലുമുണ്ടാവുക ഓരോ സിനിമയിലും ഓരോ കഥാപാത്രത്തിൻ്റെയും പേരിനനുസരിച്ചും ആ പേരിൻ്റെ മോഡലും തന്നെയായിരിക്കും ആ വസ്ത്രങ്ങൾക്കും ഉണ്ടായിരിക്കുന്നത് ആ മോഡലിൽ തന്നെയാണ് ഇന്നത്തെ സമൂഹത്തിലെ മക്കളും നമ്മളും ജീവിക്കുന്നതും ഏത് മോഡലാണോ ഇന്നിറങ്ങുന്നത് ആ മോഡലിൽ തന്നെ ജീവിക്കാനായിരിക്കും എല്ലാവർക്കും ഇഷ്ടവും താല്പര്യവുമുണ്ടായിരിക്കുന്നതും ഇന്നത്തെ സമൂഹം തന്നെ പറഞ്ഞാല് സിനിമയിലെ ഏത് കഥാപാത്രങ്ങൾ എങ്ങനെ ജീവിക്കുന്നു അവരെങ്ങനെയാണോ അതില് കാണിക്കുന്നത് ആ ലെവലിലേക്ക് ജീവിക്കാനും ആ വസ്ത്രരീതിയിൽ തന്നെ വളരാനുമാണ് ഇന്ന് മക്കള് ആഗ്രഹിക്കുന്നത് വസ്ത്രധാരണം കൊണ്ട് ഇന്ന് പല പല ദോഷങ്ങളുമുണ്ടായിട്ടുണ്ട് എന്നാല് ഗുണങ്ങളുമുണ്ടായിട്ടുണ്ട് ദോഷങ്ങളെന്ന് പറഞ്ഞാല് ഒത്തിരി വസ്ത്രധാരണ രീതിയിൽ മാറ്റം വന്നതോടുകൂടി പല പല അപകടങ്ങളും പല പല പീഡനങ്ങളും അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുമുണ്ടായിട്ടുണ്ട് അതൊക്കെ വസ്ത്രധാരണം അതിനൊക്കെ ഒരു ഇതായി തീർന്നിട്ടുമുണ്ട് മുഖ്യ ഘടകമായി തീർന്നിട്ടുമുണ്ട് എന്നാൽ വസ്ത്രധാരണമെന്ന മാന്യമായ രീതിയിൽ വസ്ത്രം ധരിക്കുന്നതുമുണ്ട് എന്നാൽ അതിലപ്പുറത്തേക്ക് മാറുന്നതുമുണ്ട് വസ്ത്രം എപ്പോഴും മോഡല് നല്ലതാണ് എല്ലാമൊരു പരിധിവരെ ഇന്നത്തെ സിനിമയിലെ മോഡൽ എന്താണോ ആ മോഡലിലൂടെ ജീവിക്കാനാണ് ഇന്നത്തെ സമൂഹവും തലമുറകളും മക്കളും ആഗ്രഹിക്കുന്നതും ഇന്ന് ജീവിക്കുന്നതും സിനിമയിൽ ഏത് മോഡലാണോ ഏത് രീതിയാണോ ആ രീതിയിൽ തന്നെ ഇന്ന് മക്കൾ ജീവിക്കുന്നുമുണ്ട് ആ രീതിയിൽ തന്നെ ഇന്ന് മുന്നോട്ട് പോകുന്നമുണ്ട് ഇന്ന് വളർന്നുവരുന്ന എല്ലാ തലമുറകളും സിനിമയിലെ ഏത് മോഡലും ലോകവുമാണോ അതാണ് അവരുടെയും ജീവിതം ആ ജീവിതത്തിലേക്ക് പോകാനാണ് അവരാഗ്രഹിക്കുന്നതും മോഡലുകള് എല്ലാവർക്കുമുണ്ട് ആ മോഡലിൽ തന്നെയാണ് വസ്ത്രങ്ങൾ ധരിക്കുന്നതും ഓരോ രീതികൾ ചെയ്യുന്നതും ആ വസ്ത്രങ്ങളിടുന്ന രീതികളിൽപ്പോലും പല പല മാറ്റങ്ങളുണ്ടായിട്ടുണ്ട് പണ്ടൊക്കെ സാരി ധാവണി മിഡി ടോപ്പ് ഇന്നൊക്കെ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറി വെറൈറ്റി മോഡലുകൾ വന്നു ഷോർട്ട് ടോപ്പ് ജീൻസ് പണ്ടൊന്നും ഷോട്ട് ടോപ്പുകളൊന്നും പെൺകുട്ടികൾ ഉപയോഗിക്കുക പോലുമില്ലായിരുന്നു ഇന്നൊക്കെ സിനിമയിൽ എന്ത് മോഡലാണോ കാണുന്നത് ആ മോഡല് തന്നെയാണ് ഇന്നത്തെ മക്കളും ഉപയോഗിക്കുന്നത് നമ്മളും അങ്ങനെയൊരു കാലഘട്ടത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ വളരെ നല്ലതുമാണ് എന്നാൽ അത് അതിന് ദോഷവുമുണ്ട് ഗുണവുമുണ്ട് എന്നാല് എല്ലാം മിതമായ രീതിയിലാണെങ്കിൽ എല്ലാവർക്കും നല്ലതാണ് മോഡലാണ് ഇന്നത്തെ എല്ലാ മക്കളും ആഗ്രഹിക്കുന്നതും നമ്മളും ആഗ്രഹിക്കുന്നതും ചെയ്യുന്നതും ജീവിക്കുന്നതും